ലോകത്തിൽ ഏറ്റവുമധികമായി ചൂഷണത്തിന് വിധേയമാകുന്ന സമൂഹം കർഷകരാണ് എല്ലാ കാലത്തും കർഷകർ ചൂഷണത്തിന് ഇടയാകുന്നു ആധുനിക കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യർക്കും വേണ്ടത് വിഷരഹിതമായ പച്ചക്കറിയും അതോടൊപ്പം തന്നെ പ്രകൃതി ഉൽപ്പന്നങ്ങളുമാണ് കർഷകൻ അവൻ്റെ പരമാവധി പരമാവധി സമയവും അവൻ്റെ ധനവും അതോടൊപ്പം തന്നെ അവൻ്റെ അറിവുകളും സ്വീകരിച്ച് കൊണ്ട് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറികൾക്ക് ജൈവ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ വില ലഭിക്കുന്നില്ല വേണ്ട വില ലഭിക്കുന്നില്ല എന്നത് ദുഖകരമായ വസ്തുതയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് വിഷം തീണ്ടാത്തത് നമുക്ക് കിട്ടണം എന്നാണ് എന്നാൽ അതിന് കർഷകൻ കൊടുക്കുന്ന ആ കഷ്ടപ്പാടിനുള്ള വില കൊടുക്കാനായിട്ട് ഒരു മനുഷ്യരും തയ്യാറാകുന്നില്ല ഉദ്യോഗസ്ഥരുടെ ശമ്പളം തൊഴിലാളികളുടെ ശമ്പളം ഒക്കെ കാലാനുസൃതമായി വർദ്ധിക്കുമ്പോഴും അതിന് അനുസൃതമായ ഒരു ഒരു വളർച്ച ഒരു സാമ്പത്തിക വളർച്ച ഉൽപ്പാദന മേഖലയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുകയില്ല കേരളത്തിൽ കൃഷി ഉൽപ്പാദനം നിലച്ച് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വളർച്ച ഇല്ലായ്മയാണ് കാർഷിക മേഖലയ്ക്ക് നമ്മൾ കൊടുക്കുന്ന നമ്മൾ കൊടുക്കുന്ന നമ്മൾ വില കല്പിക്കാത്തതുകൊണ്ടാണ് പണം ഉള്ളവർ ഒരു എഞ്ചിനീയർ തങ്ങളുടെ മക്കളെ പഠിപ്പിച്ച് ഡോക്ടർ ആക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഡോ എഞ്ചിനീയർ ആക്കണം എന്നാഗ്രഹിക്കുന്നു ഡോക്ടർ തൻ്റെ മക്കൾ ഡോക്ടർ ആകണം എന്നാഗ്രഹിക്കുന്നു എന്നാൽ ഒരു കൃഷിക്കാരൻ ഒരിക്കലും തൻ്റെ മക്കൾ കൃഷിക്കാർ ആകണമെന്ന് ആഗ്രഹിക്കുന്നില്ല കാരണം എന്തെന്ന് വെച്ചാൽ സമൂഹത്തിൽ ഒരു ഡോക്ടർക്ക് ലഭിക്കുന്ന മാന്യത ഒരു എഞ്ചിനീയർക്ക് ലഭിക്കുന്ന മാന്യത ഒരു അദ്ധ്യാപകന് ലഭിക്കുന്ന മാന്യത ഒരിക്കലും ഒരു കർഷകന് കിട്ടുന്നില്ല കർഷകൻ ഏറ്റവും നല്ല വിളവുണ്ടാക്കി ഞങ്ങൾക്ക് തരണം ഞങ്ങൾ അത് നല്ലവണ്ണം കഴിച്ച് ഞങ്ങൾ നല്ല രീതിയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളേയും വളർത്തി ഞങ്ങൾ ഈ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഞങ്ങൾ വിഷരഹിതമായി ജീവിക്കുമ്പോഴും അവർ കർഷകൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കുന്നില്ല നിങ്ങൾ ഒരു മാളിൽ പോയി ഒരു വലിയ ഷോപ്പിങ്ങ് കേന്ദ്രത്തിൽ പോയി ഒരു വലിയ കച്ചവട കേന്ദ്രത്തിൽ പോയി അവർ നിങ്ങളോട് പറയുന്ന വില കൊടുത്ത് സാധനം വാങ്ങാനായിട്ട് നിങ്ങൾ തയ്യാറാകുമ്പോൾ ഒരു കർഷകൻ സ്വയം ഉൽപ്പാദിപ്പിച്ച് അവൻ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ ഒരു റോഡ് സൈഡിൽ വിൽക്കുമ്പോൾ നിങ്ങൾ അവരോട് വില പറഞ്ഞ് വില പേശി നിങ്ങളുടെ നിങ്ങൾ എത്രത്തോളം താഴാൻ പറ്റുമോ എത്രത്തോളം തറയാകാൻ പറ്റുമോ അത്രത്തോളം താഴ്ന്ന് ഒരു കർഷകൻ മണ്ണിനോളം താഴുന്നു എന്നാൽ അവൻ്റെ കാലടിയോളം താഴ്ന്ന് നിങ്ങൾ അവൻ്റെ കയ്യിൽ നിന്ന് വ് യാചിച്ച് ഇരന്ന് തെണ്ടി ആ സാധനം മേടിച്ച് കൊണ്ട് പോയി വലിയ സന്തോഷത്തോടെ അത് നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിൽ പങ്ക് വയ്ക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് അങ്ങനെയല്ല കാർഷിക വളർച്ച ഉണ്ടാകണമെങ്കിൽ കർഷകരെ നമ്മൾ എല്ലാ കാലത്തും പ്രോത്സാഹിപ്പിക്കണം കർഷകരെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ് അല്ലാണ്ട് എനിക്ക് നല്ലത് കിട്ടണം എനിക്ക് നല്ലത് തിന്നണം അതിനും വേണ്ടിയിട്ട് കർഷകൻ എന്നും അടിമയെ പോലെ അല്ലെങ്കിൽ ചെളിയിൽ പണിയെടുക്കുന്ന കാളയെ പോലെ പണിയെടുക്കണം പോത്തിനെ പോലെ പണിയെടുക്കണം എന്ന ചിന്ത സമൂഹത്തിൻ്റെ തലയിൽ നിന്ന് മാറാതെ ഒരു കാലത്തും നമ്മുടെ കാർഷിക മേഖല രക്ഷപെടാനായിട്ട് പോകുന്നില്ല മാറി മാറി വരുന്ന ഗവണ്മെൻ്റുകളെല്ലാം തന്നെ ചൂഷണത്തിനുള്ള ഒരു വസ്തുവായി മാത്രം കർഷകരെ കാണുന്നു സബ്സിഡി എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് നൽകുന്ന പണമൊക്കെ ഏതെങ്കിലും ഭാഗങ്ങളിലേക്ക് ഒഴുകി പോകുന്നതല്ലാതെ യഥാർത്ഥത്തിൽ അത് കർഷകൻ്റെ കയ്യിൽ എത്തി ചേരുന്നില്ല അത് ഈ കാലഘട്ടത്തിൻ്റെ ദുഖമാണ് കാലഘട്ടത്തിൻ്റെ ശാപമാണ് നമുക്ക് ആണെങ്കിൽ നമ്മുടെ കർഷകരെ സ്നേഹിച്ച് നല്ല ഉൽപ്പന്നങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇടനിലക്കാരെ ഒഴിവാക്കി കർഷകരിൽ നിന്ന് നേരിട്ട് നമുക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ട് കഴിയണം അങ്ങനെ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നല്ല വില കൊടുത്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണം ഞാൻ ഈ പത്രങ്ങളിലും അതോടൊപ്പം തന്നെ സെമിനാറുകളിലും ഒക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്ന ഡോക്ടർമാരെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഡോക്ടറേറ്റ് നേടിയവരെ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു കർഷകന് ക്ലാസ് എടുക്കാനായിട്ട് ഏറ്റവും യോഗ്യൻ ആരെന്ന് വെച്ചാൽ സ്വന്തം മുറ്റത്ത് ഒരു ചെടി നട്ട് അതിൽ നിന്ന് പൂ പറിക്കാൻ കഴിവുള്ള ഒരാളിനെ കൊണ്ട് ആ അയാളുടെ മാന്യത അയാൾക്ക് മാന്യത കൽപ്പിച്ച് യഥാർത്ഥത്തിൽ ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടത് ഇമ്മാതിരി വെളുത്ത കോളറിൽ ജോലി ചെയ്യുന്നവർക്കാണ് എന്ന് പറഞ്ഞു വയ്ക്കാതിരിക്കാൻ നിവൃത്തിയില്ല